ആ പറഞ്ഞോളൂ എന്തുവാ എന്തുവാ ആ ആ പറഞ്ഞോ കൊച്ചേ എന്നാ കൊച്ചേ ആ ആ ആ ആ ഏത്ത വാഴയ്ക്കാണല്ലേ ഹമ്മ് ഏത്തവാഴയ്ക്ക് നമ്മളൊരു ഒരു ഒന്നൊര മാസമൊക്കെയാവുമ്പം ഫാക്ടംഫോസും ഇച്ചിരി യൂറിയയും കൂടി ഇട്ടു കൊടുത്താൽ നല്ലപോലെ തഴച്ച് വളരും നല്ല വലിപ്പം വെക്കും ആ പിന്നെ കുലയ്ക്കാറാവുമ്പം പൊട്ടാഷ്യം കൂടി ഇട്ടു കൊടുത്താൽ നല്ല തൂക്കമുള്ള കുലയുണ്ടാവും എന്നാ നല്ല വണ്ണമുള്ള കായയുണ്ടാവും അത് ഏത്തവാഴയ്ക്കാണ് അങ്ങനെ ചെയ്യുക പിന്നെ കപ്പയ്ക്കെന്നു പറഞ്ഞാൽ രാസവളങ്ങൾ ചേർക്കാതിരിക്കുകയാ നല്ലത് കാരണം ചിലപ്പോൾ കയിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസുണ്ട് നമ്മൾ കപ്പ നട്ടുകഴിഞ്ഞ് ഒരു ആറേഴ് ഇലയൊക്ക വന്ന് കഴിയുമ്പോൾ ഇച്ചിരി ചാരവും ചാണകവും കൂടെ പൊടിച്ചിട്ട് അതിന് ഈ ജൈവവളമായിരിക്കും നല്ലത് അത് പൊടിച്ച് ചേർക്ക് അതിൻ്റെ ചുവട്ടിലിട്ട് മൂടി ഇളക്കി കൊടുക്കുക എന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക ആ രണ്ട് ആ രണ്ട് വളങ്ങൾ ആ ആ ആ ആ രണ്ട് വളങ്ങൾ പച്ചക്കറികളൊക്കെ രാസവളങ്ങളും നല്ലതാണ് ഇടക്ക് പച്ചക്കറികളൊക്കെ ഇടാം ചീരയോ പയറോ കമ്പോസ്റ്റ് നമ്മുടെ വീട്ടിലെ അടുക്കള വെയിസ്റ്റ് തന്നെ കമ്പോസ്റ്റാക്കി എടുക്കുന്ന ആ ഒരു പരിപാടിയുണ്ടല്ലോ ആ അപ്പം അതിനകത്ത് അതെടുത്ത് അതിനകത്തിടുക പച്ചക്കറി പയർ കപ്പയിൽ പയറാകുമ്പം കപ്പയുടെ ചുവട്ടിൽ കൂടെ പയറിട്ടാൽ മതി അപ്പോൾ ആ കപ്പത്തണ്ടേൽ പടർന്ന് കയറും ആ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ ആ പച്ചക്കറി പയറും ചീരയൊക്കെയിട് കപ്പയും വാഴയും കൂടെ ആവുമ്പം അതിനിടയ്ക്ക് നന്നായിട്ട് വളർന്ന് കയറിക്കോളും അങ്ങനെ ആ ആ ഈ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി ഈ വളങ്ങളൊക്കെ തരാവേ നമ്മുടെ കയ്യിലുണ്ടതൊക്കെ ഓക്കെ മ്മ് അതിന് ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ

ഇഞ്ചിയോ ഇഞ്ചിയോ ആ ഇഞ്ചിക്ക് ഇഞ്ചിക്ക് ഇഞ്ചിക്ക് ചെയ്യാം നമ്മൾ കപ്പയ്ക്കും വാഴയ്ക്കും എന്തായാലും തടം കോരുമല്ലോ അപ്പം അതേപോലെ അത് കുറച്ച് സ്ഥലത്തോട്ട് മാറ്റി നമ്മളതിനിടയ്ക്കായിട്ട് ഇച്ചിരി വാരം കോരി ഇഞ്ചി അതിനകത്ത് ചപ്പും ചാരവുമൊക്കെ ചപ്പു കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അതിൻ്റെ ചാരവും ചാണകവും മണ്ണും എല്ലാം കൂടെ ഇളക്കിയിട്ടിട്ട് ആ ഇളക്കിയിട്ടിട്ട് നന്നായിട്ട് വെള്ളമൊഴിച്ച് നനച്ച് അത് മിക്സായി കഴിയുമ്പോൾ ഇഞ്ചി നട്ടു കൊടുത്താലും നല്ലതായിരിക്കും ഇഞ്ചി മഞ്ഞളുമതുപോലെ തന്നെ ആ മഞ്ഞളുമതുപോലെ തന്നെ നല്ലതാ മഞ്ഞളിൻ്റെ വിത്ത് കിട്ടും ആ ഇടാൻ പിന്നെ പയറും ചീരയുമൊക്കെ ആകുമ്പം അത്യാവശ്യം പച്ചക്കറികളാവും മ്മ് വെണ്ടയോ ആ ആ ആ ആ ആ ആ വെണ്ട വിത്തൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും വെണ്ടയൊക്കെ പ്രത്യേകിച്ച് നമ്മളൊരു വളവും ചെയ്യേണ്ട ഇതിൻ്റെയൊക്കെ ചുവട്ടിലാവുമ്പം ഈ വളം തന്നെ വലിച്ചെടുത്തോളും മ്മ് വലിച്ചെടുത്തോളും നമ്മളൊന്നും ചെയ്യുകയും വേണ്ട ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ നല്ലത് ആ ആ കശുമാവിൻ്റെ തൈ ആ ആ പറഞ്ഞിട്ടുണ്ടല്ലേ ആ ആ ആ ആ ഞാനിവിടെ സാധനം വളം വാങ്ങിക്കാൻ വരുന്നവരോടൊക്കെ പറയാം അങ്ങനെയുണ്ടെന്ന് കൃഷിഭവനിൽച്ചെന്ന് വാങ്ങിക്കാൻ പറയാം ഓക്കെ ഓക്കെ എന്നാൽ ശരി